ഹെഡ് ഫോണാണ് വാങ്ങിച്ചത് എന്താണെന്നറിയില്ല വാങ്ങിച്ച അന്ന് തൊട്ട് കംപ്ലയിന്റാണ് ഓൺലൈൻനിൽ ഓഡർ ചെയ്തതാണ് ഹെഡ് ഫോൺ ചാർജ് നിൽക്കുന്നില്ല പിന്നെ ചെവിയിലും മര്യാദയ്ക്ക് വെക്കാൻ പറ്റുന്നില്ല പിന്നെയത് ഇങ്ങനെ എന്താ പറയുക ബ്ലൂടൂത്ത് കണക്ട് ആകില്ല നമുക്ക് ആദ്യമായി ഞാനൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു എവിടെ വച്ചാലും നമുക്ക് എത്ര ദൂരെ നിന്നും കണക്ട് ആകുമായിരുന്നു പക്ഷെ ഇത് കണക്ട് ആകുന്നില്ല ഒന്നിനും കൊള്ളാത്തൊരു പ്രൊഡക്ട് എനിക്ക് ഇഷ്ടമായില്ല ഹെഡ് ഫോൺ